പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം മനുഷ്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവൻ്റെ സംബന്ധിച്ചെടുത്തോളം അതിൻ്റെ ചുറ്റുപാടും പ്രകൃതിയും അതുപോലെതന്നെ വൃത്തി ഉള്ളതായിരിക്കണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രമെ മനുഷ്യർക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളു തീർച്ചയായിട്ടും ഇപ്പോൾ അത് നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിലാണെങ്കിലും മറ്റു എൻ ജി ഓകളിലാണെങ്കിലും ഇപ്പോൾ സാമൂഹിക സേവനം ഒക്കെ എല്ലാ രീതിയിലൊക്കെയാണെങ്കിലും പ്രകൃതി അവരെ വലിയ രീതിയിൽ എന്താണ് അതിനെ സംരക്ഷിക്കാൻ വലിയ രീതിയിലുള്ള കാര്യങ്ങളവരേ ഉൾക്കൊള്ളിച്ച് അവരുടെ നിയമാവലി അതൊക്കെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ നമ്മുടെ പരിസ്ഥിതിയെ ഹരിതപരമായിട്ട് വൃത്തി ഉള്ളതായിട്ട് സംരക്ഷിക്കേണ്ടത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ ആ ഒരു രീതിയിൽ ടൂറിസം നമുക്ക് വലിയ രീതിയിൽ ശക്തിപ്രാപിക്കും കാരണം വിദേശത്തുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുമ്പോൾ അവർ നമ്മുടെ വൃത്തി ഒരു രീതിയിൽ പ്രധാനത്തോടെ നമ്മൾ നമ്മൾ ഭക്ഷണത്തിനാണെങ്കിലും അവർ പോവുന്ന സ്ഥലങ്ങളെ ആണെങ്കിലും എല്ലാ രീതിയിലൊക്കെയാണെങ്കിലും വൃത്തി വലിയ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെതന്നെ നമ്മുടെ നദികളെയും പർവ്വതങ്ങളെയും ഒക്കെ ഈ അന്നേരം എന്താണ് നമ്മുടെ കൃത്യമായിട്ട് രീതിയിൽ ഇതൊക്കെ സംരഷിക്കാതെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും മറ്റു ഈ പ്രത്യേകിച്ചും നമ്മുടെ ഒരു എന്താണ് നമ്മുടേ ഈ ഫാക്ടറികളിലൂടെയൊക്കെ ഉണ്ടാവുന്ന മലിന ജനങ്ങൾ മലിന ജലങ്ങളൊക്കെ ഈ ഒരു എന്താണ് ഈ നദികളിലൂടെയൊക്കെയാണ് ഒഴുകി പോകുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയ്ക്ക് ദോഷമാണ് അതു തീർച്ചയായിട്ടും നമ്മൾ അതിനെയൊക്കെ പിന്നെ ആ ഒരു ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഹരിതവും വളരെ സുസ്ഥിരവുമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമെ ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ പറ്റുള്ളു അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കത്തുള്ളു അതുപോലെ നമ്മളെ നദികളേയും നമ്മുടെ പർവ്വതങ്ങളേയും അതുപോലെ മറ്റു പ്രകൃതി വിഭവങ്ങളെയൊക്കെ നമുക്ക് വലിയ രീതീല്തിയിൽ സംരക്ഷിക്കേണ്ടതുണ്ട്